ആ ചേട്ടാ ചേട്ടാ ഞാനന്ന് ചേട്ടന്റെയൊപ്പം വന്നില്ലായിരുന്നോ മറ്റേ മൂന്നാറു വരെ ടാക്സിയില് ആ എന്നാ ഉണ്ട് ആ എങ്ങനെയുണ്ട് ഹോ ഹോട്ടല് പോവുന്നുണ്ടോ ഗംഭീരമായിട്ട് ഓട്ടോ ഒക്കെ പോവുന്നുണ്ടോ ഗംഭീരമായിട്ട് എന്റെ പൊന്നുചേട്ടാ ആ പിന്നെ തുറന്നുപറയാമല്ലോ ചേട്ടന്റെ ഇങ്ങോട്ടുള്ള ഡ്രൈവിങ്ങിത്തിരി മോശമായിരുന്നേ ആ വയസ്സായിക്കഴിഞ്ഞില്ലേ അതിന്റെതായിരിക്കും അല്ലേ ആ പിന്നെ ചേട്ടാ ഈ ഞാൻ ചെറുതായിട്ട് ഒരു ബിസിനസ്സ് മൂന്നാറില് സെറ്റപ്പ് ചെയ്യാനാലോചിക്കുകയാണ് എന്നാ അഭിപ്രായം അത് ഞാനതിന് എന്താണ് ഇടാൻ പോകുന്നതെന്നു പറഞ്ഞില്ലല്ലോ ചേട്ടാ ചേട്ടനതിനുമുന്നേ ചേട്ടാ ഞാനേ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഇട്ടാല് കൊള്ളാമെന്നുണ്ട് പോകുമോ ചേട്ടാ അതെന്നാ ചേട്ടാ എന്റെ കമ്പനിയില്നിന്നു ചേട്ടന് മേടിക്കില്ലേ ചേട്ടാ അല്ല എന്റെ ചോക്കലേറ്റ് ചേട്ടന് മേടിക്കില്ലേ പിന്നെ അല്ല ഞാനങ്ങനെയൊരു കമ്പനി തുടങ്ങിയാല് ചേട്ടനായിരിക്കും അതിന്റെ മെയിൻ ഡ്രൈവര് ചേട്ടന് ഇപ്പോള് ഓട്ടത്തിന് എന്നാ കൂലി കിട്ടും ചേട്ടനെക്കൊണ്ടൊക്കെ ലോങ് ട്രിപ്പ് പോകാന് പറ്റുമോ ചേട്ടാ ഈ പ്രായത്തില് ഈ പ്രായത്തിലേ അങ്ങനെ പറ്റുമോന്ന് അതിനു ചേട്ടന് ഗിയറില്ലാത്ത വണ്ടി ഓടിക്കാനറിയാമോ ചേട്ടാ ഗിയറില്ലാത്ത വണ്ടി ഓടിക്കാനറിയാവോ

ചേട്ടനാ പണി ചേട്ടനപ്പോള് ഈ ടാക്സി ഡ്രൈവിങ്ങിനു മുന്നേ എന്തായിരുന്നു പണി

ആ പിന്നെ എങ്ങനെയാണ് ചേട്ടാ ചേട്ടനീ ആ എന്തായാലും ഞാന് രണ്ട് വിളിച്ചേ ഏട്ടൻ പറഞ്ഞതിനു വലിയ സന്തോഷം ശരിയെന്നാല് ആ വിളിക്കാം ശരി